റേഡിയോ ടെലിവിഷൻ പിന്നെ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ വളരെ എന്നും ഒരു സ്പുടതയും അത്രയും ലളിതവുമായാണ് ലളിതവുമെന്ന് വേണമെങ്കിലും പറയാം അത് പലകാര്യങ്ങളെ ആസ്വദിച്ചിരിക്കുന്നു അവർ അതിൽ എടുക്കുന്ന ഓരോ പ്രോഗ്രാമുകളായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളായാലും അവർ അവർ ഒരു മലയാളം എന്നതിലുപരി മലയാളം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ആങ്കറുണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല ആങ്കറിനൊരു സ്ലാങ്ങായിരിക്കും അല്ലെങ്കിൽ അത് പറയുന്നവർക്ക് മറ്റൊരു സ്ലാങ്ങായിരിക്കും അങ്ങനെ പല വിധത്തിലാണ് ഇതിരിക്കുന്നത് പിന്നെ മലയാളഭാഷയുടെ ഉപയോഗമെന്ന് പറയുന്നത് ഇപ്പോൾ മലയാളം മലയാളികൾ ഈ ലോകമെമ്പാടുമുണ്ട് അപ്പോ എല്ലാവരും ഓരേ രീതിയിലുമല്ല മലയാളം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ ഓരോരുത്തരുടെ സംഭാഷണത്തിലുണ്ടാവും ഇപ്പോൾ റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാളഭാഷ ഉപയോഗിക്കപ്പെടുന്നത് ഒരു കറക്റ്റ് മലയാളം ആണ് അത് ആ മലയാളമെന്ന് പറയുന്നത് കോമണായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്നൊരു മലയാളമാണ് അല്ലാതെ ഒരു ഏരിയയിൽ മാത്രം സംസാരിച്ച് വരുന്നൊരു രീതിയിലുള്ള മലയാളമല്ല